എന്താണ് വേണ്ടത് ആ ആ എത്ര പവനുണ്ട് ആ അഞ്ച് പവൻ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു പവന് മുപ്പതാണ് കൊടുക്കുന്നത് അപ്പോൾ അഞ്ച് പവന് അതിന് കണക്കാക്കിയിട്ടുള്ള തുക കിട്ടും പിന്നെ നിങ്ങളുടെ സ്വർണ്ണം വച്ചിട്ടിപ്പോൾ വലിയ ലോൺ എന്തെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ആ അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപേൻ്റെ ആവശ്യമാണുള്ളത് ആ ഒരു ലക്ഷം രൂപയാണെങ്കിൽ ആ അഞ്ച് പവൻ തന്നെ വച്ചാൽ മതി പിന്നെ ഇവിടെ കാർഷിക ലോണൊക്കെ കൊടുക്കുന്നുണ്ട് അതിപ്പോൾ നമ്മൾ ആ ഹൗസ് ലോൺ ആ കാർഷിക ലോണ് വരുമ്പോൾ നമ്മുടെ നികുതി ഷീട്ട് വേണം അതുപോലെ തന്നെ ഹൗസിംഗ് ലോൺ എടുക്കുകയാണെങ്കിലും നികുതി ചീട്ട് വേണം സ്ഥലത്തിൻ്റെ ആധാരവും നികുതി ചീട്ടും വേണം ആ ആ ആ ആ ആവണം അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ സ്ഥലത്തിൻ്റെ വച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അഞ്ച് ലക്ഷം രൂപയൊക്കെ മാക്സിമം നമ്മുടെ ഇവിടുന്ന് കിട്ടും പിന്നെ സ്വർണ്ണം പണയം വെച്ചിട്ടാണ് പലിശനിരക്ക് വരുന്നത് എട്ട് ശതമാനം പലിശയാണ് ഇവിടെ വരുന്നത് പിന്നെ കാർഷിക ലോണിൻ്റെ ആ എടുക്കുകയാണെങ്കിൽ നാല് ശതമാനം പലിശ മാത്രമേ വരുന്നുള്ളൂ അതിപ്പോൾ എങ്ങനെയാണ് അഞ്ച് വർഷത്തേക്ക് വച്ചിട്ടാണ് അതെടുക്കുക കാർഷിക ലോൺ എടുക്കുകയാണെങ്കിൽ ആ അഞ്ച് അഞ്ച് വർഷം അഞ്ച് വർഷം വച്ചിട്ടാണ് അപ്പോൾ അഞ്ച് വർഷം വച്ചിട്ടാവുമ്പം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നിങ്ങൾക്ക് പൈസ കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ട് അടയ്ക്കാം അല്ലെങ്കിൽ അഞ്ച് വർഷം അഞ്ച് അതിൻ്റെ മുമ്പ് ക്ലോസ് ഇല്ലെങ്കിൽ ക്ലോസ് ചെയ്യാം ആ ലോൺ തീരുന്നതിനു മുമ്പ് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം അങ്ങനെ അപ്പോൾ എന്ത് ലോണാണ് നിങ്ങൾക്ക് വേണ്ടത് ഗോൾഡ് കാർഷിക ലോണ് എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഹൗസിംഗ് ലോണാണോ എടുക്കുന്നത് അല്ലെങ്കിൽ ഗോൾഡ് പണയം വച്ചാണോ ആണോ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാൽ നമുക്ക് ഹൗസിംഗ് ലോണുതന്നെ എടുക്കാം ഓക്കെ ശരി